ഈ കാലഘട്ടത്തിൽ സ്കൂള് വിദ്യാഭ്യാസത്തിന് ശേഷം എല്ലാ കുട്ടികളും അവർ ഉന്നത വിദ്യാഭ്യാസത്തിന് പോവുകയാണ് ചെയ്യുന്നത് അതോടൊപ്പം അവര്ക്ക് ഓരോ ഓരോ ഈ കാലഘട്ടത്തിൽ ഒരുപാട് കഴിവുകള് നമ്മുടെ കുട്ടികളിൽ ഉണ്ട് അപ്പം ആ കഴിവിനെ നമ്മൾ കൂടുതല് കൂടുതല് ഡെവലപ്പ് ചെയ്തു നമ്മൾ മുന്നോട്ട് വിദ്യര്ത്ഥികള്ക്ക് അവരുടെ അഭിരുചി അനുസരിച്ചു മുന്നോട്ടു പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമുക്ക് ധാരാളം ലഭിക്കുന്നുണ്ട് അപ്പം ഒരു കുട്ടിക്ക് ഒരു കുട്ടിയുടെ കഴിവ് മനസ്സിലാക്കി അവർ ഇപ്പോള് പല കാര്യങ്ങളിൽ അതായത് കഴിവ് മനസ്സിലാക്കി തന്നെയാണ് അവരോട് അവര്ക്ക് എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ തന്നെ പോകാനുള്ള എല്ലാ വിദ്യാഭ്യാസങ്ങൾ വിദ്യാഭ്യാസ സാധ്യതകളും നമുക്ക് ഈ കാലഘട്ടത്തില് ഇപ്പം നമുക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പം പഴയ കാലഘട്ടത്തിലാണെങ്കില് മാതാപിതാക്കൾ എന്താണോ പറയുന്നത് അത് അനുസരിച്ചായിരുന്നു തൻ്റെ കുട്ടികൾ തൻ്റെ ഉന്നത വിദ്യാഭ്യാസം തെരഞ്ഞെടുക്കുന്നത് അവര്ക്ക് ഡോക്ടർ ആകാനോ എഞ്ചിനിയർ ആകാനോ താല്പ്പര്യം ഇല്ലെങ്കില് പോലും മാതാപിതാക്കൾ അവരുടെ നിലപാട് അനുസരിച്ചു അവരുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് അനുസരിച്ചു കുഞ്ഞുങ്ങളെ ഡോക്ടറോ എഞ്ചിനിയറോ ആക്കാനുള്ള ഒരു ടെൻ്റന്സിയാണ് കാണിക്കുന്നത് എന്നാല് ഈ കാലഘട്ടത്തില് കുട്ടികൾ എന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിയിൽ കൂടെ തന്നെയാണ് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ടു പോകുന്നത് അപ്പം നമ്മൾ ഇപ്പം എല്ലാ എല്ലാ കുട്ടികളും മറ്റ് രാജ്യങ്ങളിലേക്ക് യൂറോപ്യന് രാജ്യങ്ങളിലേക്ക് പോകാനുള്ള സാധ്യതകള് കാണുന്നുണ്ട് അപ്പ ഈ സാധ്യതകൾ എന്തുകൊണ്ടെന്നാല് അവര്ക്ക് ധാരാളം മണി അതായത് പണം സമ്പാദ്യം സമ്പാദിക്കുക എന്നുള്ളത് അവരുടെ ഒരു വലിയ ഒരു ഈ കാലഘട്ടത്തില് ജീവിക്കണമെങ്കില് നമ്മുടെ ഇപ്പോഴത്തെ സമൂഹത്തിൽ നമുക്ക് ജീവിക്കണമെങ്കില് നമ്മൾ ധാരാളം സാമ്പത്തികം നമുക്ക് ഉണ്ടെങ്കില് മാത്രമേ മുന്നോട്ടു പോകാന് സാധിക്കുകയുള്ളു അതുകൊണ്ട് അവര്ക്ക് നേടാവുന്നതിൻ്റെ പരമാവധി ഇതൊക്കെ നേടാവുന്നതിന്റെ പരമാവധി സാമ്പത്തികമുണ്ടാക്കാന് വേണ്ടി ഇപ്പോള് ധാരാളം കുട്ടികൾ യൂറോപ്യന് രാജ്യങ്ങളിലും മറ്റ് രാജ്യങ്ങളിലുമൊക്കെ ചേക്കേറി മുന്നോട്ട് പോകുന്നുണ്ട് അപ്പം അത് അനുസരിച്ചാണ് ഇപ്പോഴത്തെ ഉന്നത വിദ്യാഭ്യാസം മുന്നോട്ട് പോകുന്നത് പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ പിന്നേ ഓ ഈ ഇപ്പം പഠിക്കുന്ന കുട്ടികളെ തൻ്റെ മാതാപിതാക്കൾ വലിയ ബിസിനസ്സുകാരാണെങ്കില് ആ ബിസ്നെസ്സ് മേഖലയില് തന്നെ കുട്ടികളെ പറഞ്ഞു വിടാനുള്ള താല്പ്പര്യവും കാണിക്കുന്നുണ്ട് കാരണം അവരുടെ അവർ എന്താണോ ആഗ്രഹിക്കുന്നത് അതായത് ആ കുട്ടികളെ തൻ്റെ പാരമ്പര്യമായി പരമ്പരാഗതമായി അവര്ക്ക് ലഭിച്ചിട്ടുള്ള ആ സമ്പത്ത് നഷ്ടപ്പെടാതിരിക്കാന് തൻ്റെ കുട്ടികളെ അവരുടെ ആ ബിസിനസ്സിലോട്ട് താല്പ്പര്യമില്ലെങ്കില് പോലും തള്ളിവിടുന്ന പ്രവണതയും ഈ കാലഘട്ടത്തില് കാണുന്നുണ്ട് അതുപോലെ തന്നെ ധാരാളം ആള്ക്കാർ അവരുടെ താല്പ്പര്യങ്ങള്ക്കൊന്നും കൊടുക്കാതെ മറ്റ് മേഖലകൾ അതായത് മാതാപിതാക്കളുടെ താല്പ്പര്യങ്ങളെ മാത്രം മുന്നിര്ത്തി പോകുന്ന കുഞ്ഞുങ്ങളും ഉണ്ട് ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ നമ്മൾ മറ്റു രാജ്യങ്ങളിലൊക്കെ പോകുമ്പോഴത്തേയ്ക്ക് കുഞ്ഞുങ്ങള്ക്ക് പല പല അപകടങ്ങളിലും കുഞ്ഞുങ്ങളെയൊക്കെ ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട് പല കുഞ്ഞുങ്ങളും പല അപകടങ്ങളില് ചെന്നു വീഴുന്നുണ്ട് ഇപ്പം പഴയ രീതിയിൽ അവരോട് താല്പ്പര്യമൊന്നുമില്ല സംരക്ഷിക്കപ്പെടുന്നത് അവ മാതാപിതാക്കളുടെ താല്പ്പര്യങ്ങളൊന്നും അല്ല സംരക്ഷിക്കപ്പെടുന്നത് കുട്ടികൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ആ രീതിയിൽ തന്നെയാണ് ഓരോ കാര്യങ്ങളും മുന്നോട്ട് പോകുന്നത് പിന്നെ ചില ആള്ക്കാർ ആണെങ്കിൽ അവരോട് അവർ അവരുടെ സ്ഥലം അവർ അവരുടെ അവർ എവിടെയാണോ വസിക്കുന്നത് ആ സ്ഥലത്ത് നിന്നും മുന്നോട്ട് സ്ഥലത്തു നിത്ത് പറിഞ്ഞു പോകാന് പലര്ക്കും താല്പ്പര്യമില്ലാത്ത കുട്ടികളുമുണ്ട് അതായത് അവർ ആ സ്ഥലത്ത് തന്നെ എന്തെങ്കിലുമൊക്കെ ജോലി സമ്പാദിച്ചു അവരെ അവരുടെ ഉപജീവന മാര്ഗത്തിനു വേണ്ടി അവർ കഷ്ടപ്പെട്ട് ജീവിക്കുന്നവരും ഇപ്പോള് നമ്മൾ കാണപ്പെടുന്നുണ്ട് അപ്പം സ്വന്തം പ്രദേശത്ത് കൂടുതലും ആഗ്രഹിക്കുന്നത് പല പുറത്തോട്ട് പോവാന് സാധ്യതകളുള്ള ആള്ക്കാർ പോലും സ്വന്തം പ്രദേശം ചെറിയ ചെറിയ ബിസ്നെസ്സുകളോ അവഋക്ക് അവരുടെ ദൈനംദിന ജീവിതത്തിന് വേണ്ടുന്ന കാര്യങ്ങള് സാമ്പത്തികം ലഭിക്കുന്ന കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടി അവരവരുടേ പ്രദേശത്തു തന്നെ നിന്ന് മുന്നോട്ടുപോകുന്ന കുട്ടികളും ധാരാളം ഉണ്ട് അപ്പം എന്തായാലും പുറത്തു പോകാൻ ആഗ്രഹിക്കുന്ന കുട്ടികളെ പുറത്ത് തന്നെ അതായത് യൂറോപ്യന് രാജ്യങ്ങള്ലോ പോവുന്ന താല്പ്പര്യമുള്ള കുട്ടികളെ അവരവരുടെ ആഗ്രഹങ്ങൾ എന്താണോ അത് അനുസരിച്ചു അന്നെ മുന്നോട്ട് കൊണ്ടു പോവേണ്ടതാണ്